വയനാട് ജില്ലയിലെ നിരവധി സാമൂഹിക സാംസ്ക്കാരിക പാരമ്പര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഭാഷ മതം ആചാരം സമ്പ്രദായങ്ങൾ എന്നിവയെല്ലാം അതിൽ പ്രധാനപ്പെട്ടതാണ് വിവിധ ഭാഷകൾ വിവിധ മതങ്ങൾ വിവിധ ആചാരങ്ങൾ എന്നിവയെല്ലാം ഒത്തിണങ്ങിയ ഒരു പാരമ്പര്യമാണ് ഇവിടുത്തെ ജനങ്ങൾക്കുള്ളത് അതുപോലെത്തന്നെ ധാരാളം സാംസ്ക്കാരിക ഉത്സവങ്ങളും ഇവിടെ ആഘോഷിക്കുന്നുണ്ട് തിറ തെയ്യം എന്നിവയെല്ലാം ഇവിടെ കൊണ്ടാടുന്നു